പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് പറയുന്നുണ്ട് പഴയ പണ്ടു കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ പറയുന്നുണ്ട് പണ്ടത്തെ പാട്ടുകൾ അർത്ഥവത്തായിരുന്നു എന്താ കേൾക്കാൻ സുഖമുള്ള പാട്ടുകളായിരുന്നു നേരാണ് പണ്ടുകാലത്തെ പാട്ടുകൾ കേൾക്കാൻ സുഖമുള്ളതായിരുന്നു എന്നാൽ ഇന്നത്തെ പാട്ടുകൾ എല്ലാം മോശമാകാണമെന്നില്ലല്ലോ പണ്ടത്തെ പാട്ട് നല്ലതാണെന്നുള്ളത്തിൻ്റെ അർഥം ഇന്നത്തെ പാട്ട് മോശമാണെന്നല്ല ഇന്നത്തെ പാട്ടുകൾ യാതൊരു അർത്ഥമില്ലാത്ത പാട്ടുകളുണ്ട് എന്നിരുന്നാൽ കൂടെ വളരെ മനോഹരമായി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പാട്ടുകളും ഇന്ന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ തീർത്തൂം മോശമാണെന്നുള്ള രീതിയിലേക്ക് നമുക്ക് മലയാളത്തെ പാട്ടുകളെ തള്ളിവിടാൻ പറ്റില്ല എന്നാൽ പണ്ടുകാലത്തുണ്ടായിരുന്ന പാട്ടുകളെല്ലാം അതിസുന്ദരമായിരുന്നു കേൾക്കാൻ ഒരിക്കൽക്കൂടി കേൾക്കാൻ നമ്മളാഗ്രഹിച്ചുപോകുന്ന തരത്തിലുള്ള പാട്ടുകളായിരുന്നു പണ്ടുണ്ടായിരുന്നത്